ഞാൻ ഇപ്പോൾ പിന്നെ തീർച്ചയായിട്ടും നീന്തുന്നതിന് മുന്നെ കട്ടിയായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് നമ്മൾ പ്രത്യേകിച്ച് മദ്യം മദ്യം നല്ല കട്ടിയുള്ള ഭക്ഷണങ്ങൾ എന്നിവ കഴിച്ച് കഴിഞ്ഞശേഷം നാം നീന്തിയാൽ നമ്മളുടെ ശരീരം താഴേക്ക് പോകുന്നത് ഒരു അനുഭവം നമുക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നാൽ ആവശ്യത്തിന് കലോറി ഉള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ കാലും കയ്യുമടിച്ച് നീന്തി നമ്മൾക്ക് നിൽക്കുവാൻ പറ്റുകയുള്ളു അതിന് നല്ല പോഷകഗുണമുള്ള വസ്തുക്കൾ കൂടിയ ആഹാരങ്ങൾ കഴിക്കുകയും ആവശ്യമില്ലാത്ത കപ്പ മാങ്ങ ചേന ഉരുളക്കിഴങ്ങ് കാച്ചിക്ക കൂച്ചിക്ക എന്നിവയൊന്നും കഴിക്കാതിരിക്കുകയും ഏഹ് പയർവർഗ്ഗങ്ങൾ കപ്പലണ്ടി അങ്ങനെ ഉള്ള അണ്ടിപ്പരിപ്പ് നട്ട്സ് എന്നിവയൊക്കെ കഴിച്ചിട്ട് നീന്താൻ പോയാൽ നല്ലതായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവം